പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീ വടക്കുംനാഥൻ അമ്പലത്തിൽ ആണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് കാരണം ശിവൻ്റെ അമ്പലമാണ് രണ്ടുകൾ ചേരികൾ തമ്മിൽ കൂടിയാണ് മത്സരം നടക്കുന്നത് അതുപോലെ കുടമാറ്റം ആണ് ഇതിൻ്റെ മുഖ്യപ്രധാനം കുടമാറ്റം എന്നുപറയുന്ന പല തരത്തിലുള്ള പല നിറത്തിലുള്ള കുടകളുണ്ടാവും മുത്തുക്കുടകളുണ്ടാവും അത് രണ്ട് ചേരികൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് കുടമാറ്റം എന്ന് പറയുന്നത് അത് അതിനു വിദേശത്തുനിന്നും ഒത്തിരി ആൾക്കാർ അത് കാണാൻ വേണ്ടി വരുന്നതാണ് ഒരു വിശേഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒത്തിരിയേറെ ആളുകൾ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നുണ്ട് അത്രയും ജനസഞ്ചാരം ഉണ്ട് അവിടെ പണ്ടുകാലത്ത് നൂറ് ആനകൾ വരെ പങ്കെടുത്തിരുന്നു കുടമാറ്റം അതുപോലെ തിടമ്പെടുക്കൽ നറുക്കെടുക്കുന്ന ഒരു ആനയ്ക്ക് വീഴും അതിന് രണ്ട് ചേരികൾ തമ്മിൽ ചെറിയ ചെറിയ മത്സരം നടക്കും തൈക്കാട്ട് മൈതാനത്ത് നിറയെ ജനങ്ങൾ കൊണ്ട് നിറയും കാണേണ്ട ഒരു ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം അത് തന്നെ ഒരു അതേപോലെത്തന്നെ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് നടത്തുന്നത് ഉത്സവത്തിൻ്റെ ആഘോഷത്തിൽ കൂടുതൽ കാണുന്നത് വൃത്തിയും ശുദ്ധിയോടും കൂടെ ദേവിക്ക് ദേവിനിവേദ്യം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഉള്ള ഒരു ആഘോഷം